ഈ കേസർ ബദാം മിൽക്ക് ഷേക്ക് അത് എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു ഉണ്ടാക്കണം എന്നുള്ളത് അതില് ഈ കേസർ അതായത് ആ കുങ്കുമപ്പൂവ് അതിൻ്റെ ഒറിജിനൽ കിട്ടുക എന്നത് വളരെ എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു കാരണം അങ്ങനെ കാശ്മീരിലോ അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിൽ ഒന്നും അധികം ബന്ധങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അത് കിട്ടുക എന്നത് വളരെ അതിന് മാത്രമല്ല അതിൻ്റെ വില അതിന് നല്ല വില ആയതു കൊണ്ടും അത് കിട്ടുക എന്നത് എന്നെ സംബന്ധിച്ച് വളരെ ഒരു വളരെ ഒരു ഒരു വലിയ ദൗത്യമായിരുന്നു പക്ഷെ എനിക്ക് അത് ഉണ്ടാക്കണം അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കണം എന്ന് എൻ്റെ ആഗ്രഹം അത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല എൻ്റെ ഒരു ഫ്രണ്ട് അത് എനിക്ക് കൊണ്ട് തന്നു അവൾ ഗൾഫിൽ പോയി വന്നപ്പോൾ എനിക്ക് അത് കൊണ്ട് തന്നു അധികം അപൂർവ്വമല്ലാത്ത ചെരുവിക ആണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് അതൊരു വലിയ അ അത്യപൂർവ്വമായിട്ടുള്ള ഒരു ചേരുവക തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് വെച്ചിട്ട് കാരണം ആ ഒരു ചെറിയ ഒരു നുള്ള് സാധനത്തിന് എനിക്ക് എൻ്റെ ആയിരം രൂപയാണ് നഷ്ടപ്പെട്ടത് ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് അധികം പണമൊന്നും ഇല്ലാത്തവർക്ക് ചിലപ്പോൾ അതൊരു വലിയൊരു സംഭവം തന്നെയായിരിക്കും ഞാൻ അതാണ് എനിക്ക് ഇപ്പം പെട്ടെന്ന് പറയാൻ പറയുമ്പോൾ എനിക്ക് അതാണ് എൻ്റെ മനസ്സിൽ വരുന്നത് കാരണം ആ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കാരണം എനിക്ക് കുക്കിംഗ് വളരെ താത്പര്യമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ പലതരത്തിലുള്ള ഷേക്ക് ഞാൻ ഉണ്ടാക്കി എൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടതാണ് എനി അവർക്ക് ബദാം മിൽക്ക് ഷേക്ക് വേണമെന്ന് കേസർ ബദാം മിൽക്ക് ഷേക്ക് വേണം എന്ന് ഇങ്ങോട്ടേക്ക് പറയുമ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് അവരുടെ പിറന്നാളിന് ഉണ്ടാക്കി എൻ്റെ മോളാണ് അവളുടെ പിറന്നാളിന് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നു അപ്പോൾ അതിൻ്റെ ആ അപൂർവ്വമായ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ചിരിവരുമെങ്കിലും അവൻ അവരിൽ എനിക്ക് അപൂർവ്വമായി തോന്നിയിട്ടുള്ള ആ സാധനമാണ് എനിക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നത്